കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേരിലാണറിയപ്പെടുന്നത് കേരളം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ആകർഷകമായ രീതിയിലുള്ള ഒട്ടനവധി പ്രാദേശിക വിനോദങ്ങൾ കേരളത്തിൽ നിലവിലുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഓണമാണ് കേരളത്തിൽ ദേശീയ ഉത്സവമായി ആഘോഷിക്കുന്ന ഒന്നാണ് ഓണം കേരളത്തിലെ രാജാവായിരുന്ന മഹാബലി വാമനൻ ചവിട്ടി താഴ്ത്തിയതിനെ തുടർന്ന് പാതാളത്തിലേക്ക് പോയി ഇതിന് ശേഷം മഹാബലി വർഷത്തിലൊരു തവണ തൻ്റെ പ്രജകളെ കാണുന്നതിന് വേണ്ടി തിരിച്ച് കേരളത്തിലെത്തുന്നു ഇതിനെയാണ് നമ്മൾ ഓണമായി ആഘോഷിക്കുന്നത് സങ്കീർണ്ണമായ പൂക്കളങ്ങൾ വിഭവ സമൃദ്ധമായ ഊണ് പിന്നെ പരമ്പരാഗതമായ വള്ളം കളി ഇവയെല്ലാം കേരളത്തിൻ്റെ സമ്പന്നമായ സംസ്കാരവും കേരളത്തിൻ്റെ പൈതൃകവും എല്ലാം പ്രദർശിപ്പിക്കുന്ന ഒന്നാണ് കേര കേരളത്തിൽ എല്ലാ വർഷവും മലയാളം കലണ്ടർ ചിങ്ങ മാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത് ഓണത്തിൻ്റെ പത്ത് ദിവസത്തെ ആഘോഷമാണ് ഓണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവോണം സെപ്റ്റംബർ പതിനഞ്ചിനാണ് വരു വരുന്നത് മറ്റൊരു ആഘോഷമാണ് വിഷു വിഷു മലയാളത്തിൻ്റെ പുതു വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത് കേരത്തിൽ ആഘോഷിക്കുന്ന ഒരു പ്രധാന ഉത്സവമാണ് വിഷു ആരംഭിക്കുന്നത് ഒരു വിഷു കണിയോടെയാണ് അവിടെ ആളുകൾ രാവിലെ തന്നെ ഒരു ഒരു പാട് പഴങ്ങളും ആചാരങ്ങളും എല്ലാം നടത്ത് പഴങ്ങളും എല്ലാം വെച്ച് കൊണ്ട് ന ആചാരങ്ങളും അനുഷ്ഠിക്കുന്നു ഈ പാരമ്പര്യം അടുത്ത വർഷത്തേക്ക് നമുക്ക് ഭാഗ്യവും സം സമ്പത്തും സമൃദ്ധിയും എല്ലാം കൊണ്ട് വരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് മലയാള മാസമായ മേട മാസത്തിലെ ആദ്യത്തെ ദിവസമാണ് നമ്മൾ വിഷു ആ ആചരിക്കുന്നത് ഇതും കേരളം സന്ദർശിക്കുന്ന വിനോദ സഞ്ചാരികളുടെ മനം കവരുന്ന ഒന്ന് തന്നെ ആയിരിക്കും ഇത് കൂടാതെ മറ്റ് ഒട്ടനവധി പ്രാദേശിക ഉത്സവങ്ങളാഘോഷിച്ച് വരുന്നുണ്ട് അതിലൊന്നാണ് തൃശ്ശൂർ പൂരം കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലെ വടക്കും നാഥക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന പൂരമാണ് തൃശ്ശൂർ പൂരം ഇതിനെ നമ്മൾ ഉത്സവങ്ങളുടെ ഉത്സവം എന്നൊക്കെ പറയുന്നുണ്ട് ആനകളുടെ മഹത്തായ സമ്മേളനവും ഡ്രം പ്രകടനങ്ങളും മിൻ ഒരുപാടു പടക്കവും വെടിക്കെട്ടുകൾ വെടിക്കെട്ടുകളുടെ പ്രദർശനം ഇതൊക്കെ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് എല്ലാ മത വിഭാഗങ്ങളിൽ പെട്ടവരും തൃശ്ശൂർ പൂരത്തിൽ പങ്ക് ചേരാറുണ്ട് ഇതു കൂടാതെ തൃശ്ശൂർ പൂരത്തിലെ കുടമാറ്റം ഏവരുടെയും മനം കവരുന്ന ഒരൈറ്റമാണ് മലയാളമാസം മേടത്തിലാണ് തൃശ്ശൂർ പൂരവും നടക്കുന്നത് രണ്ടയിരത്തി ഇരുപത്തി നാലിൽ ഏപ്രിൽ പത്തൊൻപത് പത്തൊൻപതിനാണ് പൂരം വരുന്നത് മറ്റൊരു ആഘോഷമാണ് തിരുവാതിര തിരുവാതിര എന്ന് പറയുന്നത് ഹിന്ദു സ്ത്രീകൾ ആഘോഷിക്കുന്ന കേരളത്തിലെ ഒരു തനത് ഉത്സവമാണ് നമ്മുടെ ശിവൻ്റെ ഒരു കോസ്മിക് നൃത്തത്തെ അനുസ്മരിക്കുന്നതാണ് തിരുവാതിര ഈ ദിവസം സ്ത്രീകൾ സ്ത്രീകൾ ഉപവാസം ആചരിക്കുകയും പരമ്പരാഗതമായ ഒരു നൃത്തമാണ് നൃത്തരൂപമായ തിരുവാതിര നടത്തുകയും ഒക്കെ ചെയ്യുന്നു ദാമ്പത്യ ജീവിതം നല്ലതാവുന്നതിന് വേണ്ടിയും ഒക്കെ വിവിധ പ്രാർഥനകളും ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകാറുണ്ട് മലയാള മാസം ധനുവിലാണ് തിരുവാതിര ആഘോഷിക്കുന്നത് മറ്റൊരുത്സവമാണ് തെയ്യം തെയ്യമെന്നു പറയുന്നത് കേരളത്തിലെ പുരാതന ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും വിശ്വസങ്ങളുടെയും ഒക്കെ ഒരു പ്രതീകമായ ഒരു നാടൻ പരമ്പരാഗത നൃത്ത രൂപമാണ് വടക്കൻ ജില്ലകളിലാണ് പ്രധാനമായും തെയ്യം അവതരിപ്പിക്കുന്നത് തെയ്യം കലാകാരന്മാർ വിവിധതരം ദേവതകളെ ഉൾക്കൊള്ളുകയും അതുമായി ബന്ധപ്പെട്ട നൃത്തം സംഗീതം എന്നിവ എന്നീ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഒക്ടോബർ മുതൽ മെയ് മാസം വരെയാണ് തെയ്യം സീസണൽ ഉത്സവമാണ് തെയ്യം ഇത് ഒരു നിശ്ചിത തിയതി നമുക്ക് പറയാനില്ല തെയ്യം വിനോദ സഞ്ചാരികളെ വളരെ നന്നായി ആകർഷിക്കുന്ന മറ്റൊരൈറ്റമാണ് ഇത് കൂടാതെ കേരളത്തിൽ ആചരിക്കുന്ന മറ്റൊന്നാണ് ആറ്റുകാൽ പൊങ്കാല കേരളത്തിലെ തിരുവന്തപുരത്ത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലാണ് ഒരു പ്രസിദ്ധമായ മതപരമായ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല ഭക്തർ പ്രത്യേകിച്ച് സ്ത്രീകൾ അന്ന് ദേവിക്ക് പൊങ്കാല ഒരു മധുര പലഹാരമാണ് പൊങ്കാല അതർപ്പിക്കുകയും ചെയ്യുന്നു അത് അത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തു കൂടുന്നു എന്ന ഒരു ഗിന്നസ് റെക്കോർഡ് ഈ ഒരു ഈ ഒരു ഉത്സവത്തിന് ഉണ്ട് ഇതു കൂടാതെ ക്രിസ്മസ്സ് മുസ്ലിങ്ങളുടെ ബക്രീദ് ചെറിയ പെരുന്നാൾ മുതലായ ആഘോഷങ്ങളും കേരളത്തിൽ ആഘോഷിക്കുന്നു എന്നും ഇത് കൂടാതെ ഒരു മറ്റൊരു പ്രാദേശികമായ ഉത്സവമാണ് മകരവിളക്കുത്സവം കേരളത്തിലെ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ മകര ജ്യോതിയുടെ ഒരു പ്രത്യക്ഷപ്പെടുന്നതിനെ അടയാളപ്പെടുത്തുന്നൊരു വാർഷിക പരിപാടിയാണ് മകരവിളക്ക് ഉത്സവം ജനുവരി പതിനഞ്ചിനാണ് ഇതുണ്ടാകുന്നത് ഇത് കൂടാതെ തിരുവന്തപുരത്ത് ആറാട്ടുണ്ട് തിരുവനന്തപുരം ആറാട്ടെന്ന് അറിയപ്പെടുന്നത് ഈ പദ്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ് തിരുവനന്തപുരം ആറാട്ടുള്ളത് ഇത് കൂടാതെ അമ്പലപ്പുഴ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ആറാട്ട് നടക്കുന്നുണ്ട് പിന്നെ ആറന്മുള ഉതൃട്ടാതി ആറന്മുള ശ്രീകൃഷ്ണൻ പമ്പ കടന്ന ദിവസം ആഘോഷിക്കുന്ന ഒന്നാണ് കേരളത്തിലെ ആറന്മുളയിലാണ് ആഘോഷിക്കുന്ന ഒന്നാണ് ആറന്മുള ഉതൃട്ടാതി പമ്പ നദിയിൽ പള്ളിയോടങ്ങൾ എന്നറിയപ്പെടുന്ന അലം അലങ്കരിച്ച തോണി വള്ളങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഈ ഉത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് വളളം കളിയൊക്കെ കാണാനും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും ഇഷ്ടപ്പെടുന്ന വിനോദ സഞ്ചാരികളെ ഇത് ആകർഷിക്കുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല ഇത് കൂടാതെ അടൂർ ഗജമേളയുണ്ട് കേരളത്തിൽ അടൂരിൽ നടക്കുന്ന ക്ഷേത്രത്തിൽ നടക്കുന്ന ആനകളുടെ ഒരു ഘോഷയാത്രയാണ് അടൂർ ഗജമേള ഗജമേള സാധാരണയായിട്ട് ഫെബ്രുവരി ജനുവരി മാസ ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യത്തിലാണ് നടത്തുന്നത് ഇത് കൂടാതെ കൊടുങ്ങല്ലൂർ ഭരണി മറ്റൊരു പ്രധാനപ്പെട്ട ആഘോഷമാണ് വള്ളം കളി കഥകളി മുതലായ ആചാര അനുഷ്ഠാന കലകളും എല്ലാം കേരളത്തിൻ്റെ തനത് വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്ന വിവിധ പ്രവർത്തനങ്ങളാണ്